കായികമായാലും ഏത് കാര്യത്തിലെടുത്താലും വിജയം പരാജയം രണ്ട് കാര്യങ്ങളുണ്ട് എപ്പോഴും എല്ലാ വ്യക്തികള്ക്കും വിജയം കരസ്ഥമാക്കാന് സാധിക്കണം എന്നില്ല പരാജയപ്പെടാത്തെ ഇതില് പരാജയപ്പെടുന്ന വ്യക്തി എപ്പോഴും പരാചയപ്പെടണമെന്നില്ല എന്നെങ്കിലുമൊരു കാലത്ത് ഒര് ടൈം അവര് ഒരു വിജയം കരസ്ഥമാക്കും അത് അങ്ങനെയാണ് എന്നും വച്ച് വിജയം സ്വീകരിച്ച വ്യക്തി എപ്പോഴും വിജയത്തിലൂടെ തന്നെ പോകും പോകുമെന്നൊരു ഒരുറപ്പും നമുക്ക് പറയാന് പറ്റില്ല ഒരു ടൈമില് അല്ലെങ്കില് ഒരു സമയത്ത് അവര് അവര്ക്കും പരാജയം വരാം അത് സ്വാഭാവികമാണ് അപ്പോൾ വിജയമായാലും പരാജയമായാലും അതിനെ നല്ല മനസ്സോടെ സന്തോഷത്തോടെ സ്വീകരിക്കുവാനായിട്ട് ഉള്ളൊരു മനസ്സ് എല്ലാ വ്യക്തികള്ക്കും ഉണ്ടായിരിക്കണം എ എത്രെയൊക്കെ കഷ്ടപ്പെട്ടു അല്ലെങ്കില് പരാജയപ്പെട്ടു എന്ന് പറഞ്ഞാലും ആ കഷ്ടപ്പെട്ടു ചെല്ലുന്നതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും പരാജയപ്പെട്ടു എന്ന് പറയുമ്പം മനസിന്റെ ഉള്ളിലൊരു വിഷമം കാണും പക്ഷെ ആ വിഷമം അതുള്ളില് തന്നെയങ്ങനെ എന്നാലും എനിക്ക് കിട്ടിയില്ലല്ലോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് കിട്ടിയില്ലല്ലോ തോറ്റ് പോയല്ലോ എന്നുള്ളൊരു ചിന്ത ഉള്ളില് വെക്കാതെ സാരമില്ല ഇനിയും അവസരങ്ങള് ഉണ്ടല്ലോ എന്ന് മനസിനെ പറഞ്ഞ് പാകപ്പെടുത്തി അതിനെ മറന്ന് അടുത്ത ഇതിലേക്ക് അടുത്ത ലെവലിലേക്ക് അല്ലെങ്കിൽ അടുത്ത മത്സരത്തിന് വേണ്ടിയിട്ട് നല്ലത് പോലെ പ്രയത്നിക്കുവാനും അതിന് വിജയം കരസ്ഥമാക്കാന് തന്നാല് കഴിയുന്ന വിധത്തിലുള്ള പരിശ്രമം നല്കുവാനായിട്ടും എല്ലാവര്ക്കും സാധിക്കണം അതൊരു മത്സരത്തിന് അത് കായികമായിട്ട് ഏത് രീതിയിലുള്ള മത്സരങ്ങളെടുത്താലും അതാ മത്സരത്തിലേക്ക് ഇറങ്ങുന്നതിന് മുന്നേ തന്നെ കിട്ടുന്ന അല്ലെങ്കില് വരാന് പോകുന്നത് വി വിജയമായാലും പരാജയമായാലും അതിനെ നല്ല മനസ്സോടെ സ്വീകരിക്കുവാനുള്ള ശക്തി അത് നല്ല എന്തുവാ ശക്തി എനിക്ക് നല്കേണമേ എന്നുള്ളത് ഒന്ന് പ്രാര്ത്ഥിച്ച് അല്ലെങ്കിൽ മനസിനെ ഒന്ന് പറഞ്ഞ് പാകപ്പെടുത്തി പോകുവാനായിട്ട് സാധിക്കുമെ സാധിക്കുവാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും എങ്കില് പോലും പരാജയമാണ് ലഭിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ നമ്മള് ഉദ്ദേശിച്ച വിജയം ലഭിച്ചില്ല എന്നുണ്ടെങ്കില് സ്വാഭാവികമായിട്ടും മനസ്സിലൊര് വിഷമം വരും അത് സ്വാഭാവികമായിട്ടും എല്ലാ മനുഷ്യര്ക്കും ഉള്ള കാര്യമാണ് എങ്കിൽ പോലും അത് സാരമില്ല എന്ന് ഓര്ത്ത് വിട്ട് സന്തോഷത്തോടെ കിട്ടിയത് സ്വീകരിച്ച് പോകുവാനായിട്ട് നമുക്ക് സാധിക്കണം അപ്പോള് തന്നെ ആ ആ ഒരു മനസ്സോടു കൂടെ നമ്മള് പോരുവാണെങ്കില് തന്നെ നമുക്ക് ആ ഒരു അവിടെ തന്നെ നമ്മള് വിജയിക്കുകയാണ് ചെയ്തത് ആ ഒരു മനസ്സ് ആ ഒരു സന്തോഷം ആ ഒരിതോടു കൂടി നമുക്ക് വരാന് സാധിക്കുവാണെങ്കില് നമ്മളവിടെ നം നമ്മുടെ ഉള്ളില് നമ്മള് വിജയിച്ചു പുറത്ത് നമ്മള് പരാജയപ്പെട്ടു അല്ലെങ്കില് നമ്മളുദ്ദേശിച്ച വിജയം കരസ്ഥമാക്കാന് സാധിച്ചില്ലെങ്കില് പോലും നമ്മുടെ ഉള്ളില് നമ്മള് വിജയിച്ചു ആ ഒരു ചിന്ത ഉണ്ടെങ്കില് തന്നെ നമ്മള് നമ്മളവിടെ വിജയം കരസ്ഥമാക്കി എന്നാണ് എന്റെ ഒരു വിശ്വാസം ആയതിനാല് മികച്ച പ്രകടനം അടുത്ത അല്ലെങ്കില് ആ ഒരു സ്പോട്സില് കൂടുതൽ മികച്ച പ്രകടനം അടുത്തതിൽ നമുക്ക് കാഴ്ച്ച വെക്കാനായിട്ട് ഈ ഒരു ചിന്താഗതി വളരെ ഏറെ ഇതാ എന്തുവാ വളരെ നല്ലതായിരിക്കും എന്ന് വച്ചാല് കഴിഞ്ഞ പ്രാവശ്യം പിന്നെ അടുത്ത ഒരു മത്സരം വരുന്നു അപ്പോൾ നമ്മുടെ മനസ്സില് വരും അട് കഴിഞ്ഞ വട്ടം അല്ലെ കഴിഞ്ഞ പ്രാവശ്യം വ ഞാന് ഞങ്ങള് പോയി മത്സരിച്ചപ്പോള് ഞങ്ങൾക്ക് ലഭിച്ചില്ല അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുദ്ദേശിച്ച ലെവലില് അല്ലെങ്കിൽ ഞങ്ങളുദ്ദേശിച്ച പോലെ മത്സരിക്കാന് സാധിച്ചില്ല അത്കൊണ്ട് ഞങ്ങൾക്ക് വിജയം കരസ്ഥമാക്കാൻ സാധിച്ചില്ല ആയതിനാല് ഈപ്രാവശ്യം ഈ വട്ടത്തെ ഞങ്ങളുടെ ഈ മത്സരം ഞങ്ങൾക്ക് അന്ന് ഞങ്ങള് കളിച്ചതിലും ഏറ്റവും ശക്തിയോടെ ധൈര്യത്തോടെ ഞങ്ങളുടെ ഏറ്റവും നല്ലത് തന്നെ അവിടെ നല്കുവാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കണം അപ്പം കഴിഞ്ഞ വട്ടം കിട്ടാത്തതിന്റെ ആ ഒരു വാശി അടുത്ത മത്സരത്തിലേക്ക് കടക്കുമ്പോള് അല്ലെങ്കില് അതിന്റേതായ പ്രക്ടീസുകള്ക്ക് വരുമ്പോള് നമുക്ക് ആ ഒരു വാശി കാണും അപ്പോൾ ആ വാശിയോട് കൂടെ നമ്മള് മത്സരിക്കുമ്പോൾ ഉറപ്പായിട്ടും നമുക്ക് അടുത്ത മത്സരത്തില് വിജയിക്കനായിട്ട് അല്ലെങ്കിൽ ആ വിജയത്തിലേക്ക് കടന്നെത്തുവാനായിട്ട് നമുക്ക് ഉറപ്പായിട്ടും സാധിക്കും ആയതിനാല് ഒരു മത്സരത്തില് തോല്വി അല്ലെങ്കില് പരാജയപ്പെട്ടു തോല്വി ലഭിച്ചു എങ്കില് അതിലൊരിക്കലും നിരാശരാകാതെ സന്തോഷത്തോടെ അത് സ്വീകരിച്ച് വരാനായിട്ട് നമുക്ക് സാധിക്കുകയാണെങ്കിൽ അടുത്ത ഒരു മത്സരത്തിലേക്ക് പോകുമ്പോള് ആ ആദ്യമേ കിട്ടാത്തതിന്റെ ആ വാശിയും എല്ലാം വെച്ച് കൊണ്ട് അടുത്ത മത്സരത്തില് പങ്കെടുക്കുവാനും നമ്മളാല് കഴിയുന്ന വിധത്തില് നമുക്ക് നമ്മുടെ ഏറ്റവും നല്ലത് തന്നെ അവിടെ നല്കുവാനും അടുത്ത മത്സരത്തില് നമുക്ക് വിജയിക്കുവാന് സാധിക്കുമെന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാന് പോയിട്ടുള്ള മത്സരങ്ങളിലെല്ലാം കയികമാവട്ടെ മറ്റ് മത്സരങ്ങളാവട്ടെ ഞാന് പരാജയപ്പെട്ട അവസരം കുഞ്ഞു നാളിലൊക്കെ പരാജയപ്പെട്ടാപ്പോൾ നല്ല വിഷമം തോന്നി എങ്കില് പോലും വലുതാവും തോറും എന്റെ ചിന്താഗതി മാറി കുഴപ്പമില്ല അടുത്തതിൽ എനിക്ക് മേടിക്കാന് സാധിക്കും അല്ലെങ്കില് അടുത്തത് ഞാന് മേടിക്കും ഇപ്രാവശ്യം പോയി അടുത്ത വട്ടം എനിക്ക് എങ്ങനെയെങ്കിലും നേടിയെടുക്കണം എന്നുള്ളൊരു വാശി ഒരു ചിന്ത എന്റെ മനസ്സില് വന്ന് അടുത്ത പ്രാവശ്യത്തേക്ക് ഞാന് എന് എന്റെ കഴിയുന്ന വിധത്തില് അത്രയും ഞാൻ കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ എൻ്റെ ടീമിന് കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് ആ അവസരങ്ങളിലൊക്കെ ഞങ്ങൾക്ക് ആ ഒരു ചിന്തയോടു കൂടെ പോയത് പോയി ഇനി ഉള്ളത് എങ്ങനെയെങ്കിലും പിടിക്കണം എന്നുള്ള വാശിയോട് കൂടെ ഞങ്ങള് വന്ന് ഞങ്ങൾക്ക് അങ്ങനെ വിജയം കരസ്ഥമാക്കിയ അവസരങ്ങള് പല പലതുണ്ട് ഒന്നല്ല ഒന്നില് കൂടുതല് അങ്ങനെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട് അടുത്ത പ്രാവശ്യം നല്ല നേടിയെടുത്ത അവസരങ്ങള് ഞങ്ങള്ക്കുണ്ട് അത്കൊണ്ട് ഞാന് ആ ആരോടും ഏത് വ്യക്തികളോടാണെങ്കിലും കായത്തി കായി കായിക ഇനത്തിലാണെങ്കിലും മറ്റ് മറ്റ് ഇനങ്ങളിലാണെങ്കിലും പങ്കെടുക്കുന്നവരോട് ഒന്നേ പറയാനുള്ളു വിജയും പരാജയവും ലഭിച്ചാല് അത് സന്തോഷത്തോടെ തന്നെ സ്വീകരിക്കുക മനസ്സില് നല്ല ചിന്തയോട് കൂടെ അതിനെ സന്തോഷത്തോടെ സ്വീകരിക്കുക ആ പരാജയത്തെ ആ വിജയത്തെയാണേലും ഇപ്പം വിജയിച്ച ഒരു വ്യക്തിക്ക് അടുത്ത പ്രാവശ്യം അത് ചിലപ്പം പരാജയം ആയിരിക്കാം അത്കൊണ്ട് വിജ എനിക്ക് ഈ പ്രാവശ്യം വിജയം കിട്ടി അടുത്ത പ്രാവശ്യം കിട്ടുമെന്നുള്ള ഒരു കോണ്ഫിഡന്സോട് കൂടെ പോകാന് നിൽക്കാതെ അടുത്ത പ്രാവശ്യം പോകുമ്പോഴും ഈ വിജയം കളയാതെ ഒന്നും കൂടെ വിജയത്തോട് കൂടെ തന്നെ പരിശ്രമിക്കാന് വിജയം ലഭിക്കാനായിട്ട് പരിശ്രമിക്കാനായിട്ട് സാധിക്കാതെ വിജയം ആയാലും പരാജയം ആയാലും അടുത്ത പ്രാവശ്യം പോകുമ്പോൾ സന്തോഷത്തോടെ ആ വിജയത്തെയും പരാജയത്തെയും സ്വീകരിച്ച് അടുത്ത പ്രാവശ്യത്തേക്ക് വാശിയോടു കൂടെ തന്നെ അതിന്റെ കാര്യങ്ങള് പ്രാക്ടീസൊക്കെ ചെയ്ത് മത്സരത്തില് പങ്കെടുക്കുക എന്ന് ഞാന് പറയുകയുള്ളൂ